ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയിലൂടെ പോകുന്ന കാലഘട്ടം തന്നെ ആണ് മാറാ വ്യാധികളും പകർച്ച വ്യാധികളും നിറഞ്ഞൊരു കാലഘട്ടം ഈ പകർച്ച വ്യാധികളുടെ കൂടെ തന്നെ നമുക്ക് സുപരിചിതമായ ഒരു രോഗമാണ് ക്യാൻസർ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും ക്യാൻസർ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും പടി പടി കൂടി കൊണ്ടിരിക്കുകയാണ് നമ്മൾക്കറിയാം പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇതിൻ്റെ എല്ലാം കാരണം നമ്മുടെ ആഹാന ആഹാര രീതികൾ തന്നെയാണ് എന്നിരുന്നാലും ഈ ക്യാൻസർ രോഗത്തിനും ഹൃദ്രോഗത്തിനും നമ്മളുടെ ആരോഗ്യ മേഖലയിൽ പ്രത്യേകം പ്രത്യേകം തന്നെ ഡിപ്പാർട്ട്മെൻ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഓരോരോ പ്രൈവറ്റ് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ പിന്നെ ഇത് ചികിത്സക്കായി നമ്മൾ അനേകം കാശു മുടക്കേണ്ടി വരുന്നു എന്നിരുന്നാലും അവിടുത്തെ സൗകര്യങ്ങളും സാഹചര്യങ്ങളുമെല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ളത് തന്നെ ആണ് അതുപോലെ തന്നെ നമുക്ക് മെഡിക്കൽ കോളേജുകളിൽ ഈ ക്യാൻസർ രോഗത്തിനും ഹൃദ്രോഗത്തിനും പ്രത്യേകം പരിഗണന ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് അധികം തുക ചിലവാകാതെ ആകാതെ തന്നെ നമുക്ക് രോഗത്തിൽ നിന്നും മുക്തി അല്ലെങ്കിൽ ഒരു ശമനം ലഭിക്കാൻ ഇട വരുന്നുണ്ട് ഈ മെഡിക്കൽ കോളേജുകളിൽ ആണെങ്കിലും ഇപ്പം ക്യാൻസറിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തിരുവന്തപുരത്തുള്ള ആർ സി സിയിൽ ഒത്തിരി ഒത്തിരി വളരെ വളരെ കെയർ ചെയ്യുന്നുണ്ട് ക്യാൻസർ രോഗികളെ അവർക്കു വേണ്ട മരുന്നുകളും ചികിത്സകളും എല്ലാം വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി ലഭിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ് അവിടുത്തെ ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും കരുതലുകൾ അതെല്ലാം വളരെ നല്ല ഒരു രീതിയിലുള്ള സമീപനമാണ് ആ അതേ സമയം നമ്മുടെ പ്രൈവറ്റ് ആശുപത്രികളിൽ ആണെങ്കിൽ കുറച്ച് കാശ് അധികം ചിലവാണ് ചിലവാകും പക്ഷെ നമുക്ക് നമ്മുടെ രോഗത്തിൽ നിന്ന് ഒരു പരിധി വരെ മുക്തി നേടാം മുക്തി നേടിയ അനേകം എന്തുവാണ് അനേകം കേസുകൾ കേട്ടിട്ടുണ്ട് ഹൃദ്രോഗികളെ സംബന്ധിച്ച് അവർക്ക് വേണ്ട പ്രത്യേക ചികിത്സാ രീതികളും ചികിത്സാ നൂതന സംവിധാനങ്ങളും ഇപ്പോൾ എല്ലാ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ലഭ്യമാണ് അതുകൊണ്ട് എൻ അനേകം അതായത് പറയാൻ പറ്റാത്ത അത്രയും തന്നെ രോഗികൾ അതായത് ഹൃദയ സംബന്ധമായ രോഗമായിട്ട് ചെല്ലുന്നവർ ഒത്തിരി പേർ രക്ഷപ്പെടാറുണ്ട് അവരെല്ലാവരും ഹൃദ്രോഗത്തിൽ നിന്നും മുക്തി നേടി തന്നെ വരുന്ന ഒത്തിരി അധികം കേസുകളുണ്ട് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ പുരോഗതി അതായത് നമ്മുടെ ഈ സയൻസിൻ്റെ പുരോഗതി നമ്മളെ ഒത്തിരി ഹെൽപ് ചെയ്യുന്നുണ്ട് ഈ രോഗ രോഗത്തിൻ്റെ അവസ്ഥയിൽ ഒത്തിരി ന്യുതന സംവിധാനങ്ങളും ന്യുതന മഷീനുകളും ന്യുതന മരുന്നുകളും എല്ലാം ഈ രണ്ട് രോഗത്തിനും പ്രത്യേകം പ്രത്യേകം തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് അതെല്ലാം വളരെ ഫലപ്രദവുമാവുന്നുമുണ്ട് അങ്ങനെ നമ്മുടെ ഈ ആരോഗ്യ മേഖലകളിൽ ഒത്തിരി അഭിവ്യദ്ധികളും ഒത്തിരി സൗകര്യങ്ങളും എല്ലാമിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ രോഗാവസ്ഥയെ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നേരിടാൻ സാധിക്കും